ആ ചേട്ടാ കുറേയായല്ലോ കണ്ടിട്ട് ആ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു ആ നമ്മളിപ്പോൾ ഒരു സ്ഥലം കുറച്ചു വാങ്ങിച്ചിട്ടിട്ടുണ്ടേ അപ്പോൾ അതിലൊരു വീട് പണിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് വീട് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് കോതമംഗലത്ത് കോതമംഗലം ഗ്രാമം ആ കോതമംഗലം ഗ്രാമം ഇല്ലേ ആ ആ അവിടെയാണ് സ്കൂളിൻ്റെ അവിടെ ആ അതെയതെ കറക്റ്റ് ആ റോഡ് സൈഡ് ആ അതുതന്നെ അതുതന്നെ റോഡ് സൈഡിലാണ് ആ നമ്മളപ്പോൾ ഉദ്ദേശിക്കുന്നതെന്തെന്നു വച്ചാൽ ഒരു കുറച്ചൊരു പഴയരീതിയിലുള്ള ഒരു വീട് പണ്ടത്തെ ഒരു തറവാട് മോഡൽ ആ ആ ടൈപ്പൊരു ആ ഒരു നമ്മുടെയീ വരിക്കാശ്ശേരി മനയൊക്കെപ്പോലെ അതിൻ്റെ ഒരു മോഡലിലുള്ള ഒരു വീട് ആണുദ്ദേശിക്കുന്നത് സ്ക്വയർ ഫീറ്റ് ഇതിനിപ്പോൾ ഒരു അതിൻ്റെ ഒരു ചെറിയ വേർഷെനെന്നു പറയുമ്പോൾ നമുക്കെത്രയാണ് അങ്ങനെ നോക്കുന്നില്ല ഒരു പത്തു ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ്

ആ നമ്മൾക്കൊരു മാക്സിമം ഒരൂ പരമാവധി രണ്ടായ്യിരത്തഞ്ഞൂറ് വരെ പോവാം ആ ഒരു അങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊന്നു അറിയാമെന്നു പറഞ്ഞിട്ടാണ് നിങ്ങളെ വിളിക്കാമെന്നു വിചാരിച്ചിരിക്കുന്നത് അപ്പോഴാണ് നേരിട്ട് കണ്ടത് ആ ഞങ്ങളെന്താണെന്നു വച്ചാൽ ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ തമിഴ്നാടാണ് വർക്കൊക്കെ അപ്പോൾ ഇവിടെ നിന്നിട്ട് അതിനു നിൽക്കാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളന്നെ അന്വേഷിക്കുന്നത് കാരണം നിങ്ങളാവുമ്പോൾ മൊത്തത്തിൽ ചെയ്യുമല്ലോ ആ അപ്പോൾ ഞാൻ ആ ഞാൻ മൊത്തത്തിലുള്ളൊരു കോൺട്രാക്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ അതാണ് അതിനെപ്പറ്റിയൊന്നു ചോദിക്കാമെന്നു വച്ചിട്ടാണ് ആ അല്ല എനിക്കറിയാം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വന്നത് നിങ്ങളുടെ അടുത്തേക്കുത്തന്നെ വന്നത് ഇതിപ്പോൾ ഇതിലിപ്പോൾ ഇതിലിപ്പോൾ നമ്മൾക്ക് ഈ മരത്തിൻ്റെ കൊത്തുപ്പണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാമെന്നു വച്ചാൽ അതിനൊക്ക എങ്ങനെയാണ് സംഭവങ്ങൾ

ആ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിക്ക് നന്നായിട്ട് ചെയ്യാമെന്ന് വച്ചിട്ടാണ് അതുപോലെതന്നെ നമ്മൾക്ക് ഉള്ളിലും ആ നാലുക്കെട്ട് ആ സംഭവങ്ങളും കുറച്ച് വൃത്തിയിൽ നല്ലൊരു രീതിയിൽ ചെയ്യണമെന്നുണ്ട് ആ ഇപ്പോൾ അതാണ് എനിക്കിതിനെപ്പറ്റി വെട്ടു കല്ലാണ് കൂടുതൽ നല്ലത് അല്ലേ

പിന്നേ ഇതിൽ പിന്നെ പുതിയതായിട്ട് നമ്മളെന്താണ് ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പുതിയ മോഡലുകൾ നിങ്ങളുടെ

ആ നമ്മൾ ഒരു പഴയ പഴയൊരു രീതിയിലുള്ളത് അതായത് വിന്റേജ് ടൈപ്പിൽ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്

അതെയതെ അതാണ് നോക്കുന്നത് പൈസ ഞാൻ നോക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് നല്ലരീതിയിൽ ചെയ്യണം കാരണം അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഓക്കെ ഓക്കെ ഓക്കെ അതല്ല പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് കുറച്ച് മോഡലുകൾ കിട്ടുകയാണെങ്കിൽ ഒന്നു കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ആ ശരി പിന്നൊരു പിന്നൊരു ദിവസം മതി നിങ്ങക്കെപ്പോഴാണ് ഒഴിവെന്നു വച്ചാൽ ഒന്നു കാണിച്ചുതന്നാൽ നമ്മുക്കത് ഡീറ്റൈൽഡായിട്ട് നോക്കാം ആ ശരി നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ഞാൻ നിങ്ങളുടെ തിരക്കനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ എപ്പോഴാണ് ഗ്യാപ് കിട്ടുക കാരണം ഈ പണി ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കണം കാരണം മറ്റൊരു ഇതിലേക്ക് പോവാൻ പാടില്ല കാരണം ആ അല്ല നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് രണ്ടു മാസത്തിനുള്ളിൽ തരാൻ പറ്റുമോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ എനിക്ക് കുറച്ച് ഫണ്ട് വരാനുണ്ട് അപ്പോൾ ഒരു ഒരടുത്തമാസം നിങ്ങൾക്ക് ഫണ്ട് ഞാൻ സെറ്റാക്കിത്തരാം

അപ്പോൾ അതു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഒരു ദിവസം തുടങ്ങിയാൽ മതി പറഞ്ഞാൽ അറിയിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കാം ശരി ചേട്ടാ എന്നാൽപ്പിന്നെ കാണാം ഓക്കെ